ഈ ടെക്സ്റ്റുസ്പീച്ച് എന്ന് പറഞ്ഞാൽ വിവർത്തനം അങ്ങനെത്തെയുള്ള ആപ്പ് വളരെയധികം സാങ്കേതികവിദ്യ ഉപകാരമായിട്ടുണ്ട് കാരണമെന്നുവെച്ചാൽ ഇപ്പം ഞങ്ങളെ അടുത്തുള്ളൊരു പുള്ളി പുള്ളിക്കാരന് ഈ കൈക്ക് കൈ പ്രായം കാരണമായിട്ട് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനക്കാൻ പറ്റത്തില്ല അങ്ങനെ ടൈപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ലാത്ത ഒരു പുള്ളിയാണ് അപ്പോൾ പുള്ളി എന്താ പറഞ്ഞാൽ പുള്ളിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് പുള്ളി ഇതുപോലെത്തെയുള്ള ആപ്പ് ടെസ്റ്റ് പിന്നെ ബീ വൈ എസ് ആപ്പ് എന്ന് പറഞ്ഞ പോലെത്തെ ആപ്പ് അല്ലേ മംഗ്ലീഷ് കീബോർഡ് അങ്ങനെത്തെ ആപ്പ് അങ്ങനെയുള്ള പല ആപ്പ്സ് ഉണ്ടല്ലോ അപ്പം അത് വെച്ചിട്ട് ഗൂഗിളിൽനിന്നു ഡൌൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെ വെച്ചാൽ പുള്ളി ഇതി നോക്കി വായിക്കുകയാണ് വായിച്ചിട്ട് ഇങ്ങനെ വായിക്കുമ്പോൾ പുള്ളിക്ക് പുള്ളിക്ക് കൂടുതൽ എന്ന ടൈപ്പ് ചെയ്യാ ടൈപ്പ് ചെയ്യാതെ തന്നെ ടെസ്റ്റ് രൂപത്തിൽ മലയാളത്തിലെഴുതി മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷില് ആണെങ്കിൽ ഇംഗ്ലീഷില് പറയുമ്പഴത്തെക്കിനും അതിങ്ങനെ വന്നിട്ട് ബാക്കിയുള്ളവർക്ക് പെട്ടെന്ന് സെൻറ് ചെയ്യാനൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ട് അപ്പം ഈ ടെസ്റ്റു ആപ്പ് ഭയങ്കര ഉപയോഗമുള്ള കാര്യമാണ് പ്രായമുള്ളവർക്ക് പിന്നെ കാഴ്ച വൈകല്യമുള്ളവർക്ക് അവർക്കും ഇത് ഉപകാരാണ് കാരണം വെച്ചാൽ അവർക്കിങ്ങനെ കാണാൻ പറ്റില്ലാത്തതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ വോയിസ് ആയിട്ട് അല്ലെങ്കിൽ ടെസ്റ്റുസ്പീച്ച് ഇങ്ങനെത്തെ സാധനം വെച്ചിട്ട് ഇങ്ങനെ വോയിസ് പറയുമ്പോൾ സുഖമായിട്ട് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പറയാനും അവർക്കത് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ഹെൽപ്ഫുള്ള് ആയ ഒരു എന്നാ സഹായം ആയ ഒരു കാര്യമാണ് അതുപോലെ ഈ വയിലുള്ളവർക്കും പിന്നെ എന്നാ നമ്മുടെ പ്രായമായവർക്കും അവർക്ക് പല രീതിയിലുള്ള ഇതുകോട് പ്രശ്നങ്ങൾ കാണോമല്ലോ അപ്പം ഇങ്ങനെ ഒരു ടെസ്റ്റുസ്പ്പീച്ച് വരുമ്പോഴത്തേക്കിനും അവർക്ക് കൂടുതൽ അവരുടെ സ്ട്രെസ്സും കാര്യങ്ങളും അത് പെട്ടെന്ന് ഇത്രയും ഫോഴ്സ് ചെയ്യുമ്പോൾ അവർക്ക് പ്രശ്നം അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കാനും അവർക്ക് പെട്ടെന്ന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് നടക്കുമ്പോൾ അവർക്കുള്ളൊരു സ്ട്രെസ്സ് ഇല്ലേ ഒരു കൂടുതൽ ഊന്നിനിൽക്കുന്ന ഒരു പരിപാടി ഭയങ്കരമായിട്ട് അവർക്ക് സ്ട്രെസ് എടുക്കേണ്ടി വരുന്നില്ല അപ്പോൾ ടെസ്റ്റുസ്പീച്ച് എന്തു പറയുന്നത് ഇവർ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ള് ആണ് എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ മാനസികാവസ്ഥ കൺട്രോള് ചെയ്യാനും ഒക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സാങ്കേതികവിദ്യ തന്നെയാണ് പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തെക്കിനും അവർക്ക് അവർക്ക് തിരിച്ചും ഇങ്ങോട്ടും ഇങ്ങനെ റിപ്ലൈ തരുമ്പഴ്ത്തെക്കിനും മറ്റുള്ളവർക്ക് അവർക്ക് സന്തോഷമാണ് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വൈകല്യം ഉള്ളവരെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു പ്രായമായവർ പെട്ടെന്ന് എന്താ പറഞ്ഞാൽ ഇങ്ങനെ ഒരു പെട്ടെന്ന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുന്നല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത്രയും ഒരു അവസ്ഥയിലായിരുന്നിട്ട് എന്നെ മറന്നില്ലല്ലോ എന്നുള്ള ഒരു ഒരു എന്താ പറയുക ബന്ധം ബന്ധത്തിൻ്റെയുള്ളയൊരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അകൽച്ച മാറാനായിട്ടും ഇങ്ങനെയുള്ള ആപ്പുകൾ ഭയങ്കര സഹായമാണ് കാരണം വെച്ചാൽ അവർക്ക് എളുപ്പം ഉണ്ടല്ലോ ഇങ്ങയൊരു സംസാരിക്കാനും കാര്യങ്ങളൊക്കെ പിന്നെ ഇങ്ങനെ അതുപോലെ അവർക്ക് നേരിൽ കാണുന്ന രീതിയിൽ സംസാരിക്കാനുള്ള ഒരു പരിപാടിയുംകുടെ ഇങ്ങനെ ഒരു ആപ്പ് മുഖേന സാധിക്കുന്നതുകൊണ്ട് അവൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ള് ആയ ഒരു കാര്യമായിട്ട് ഈ കാര്യങ്ങൾ ടെക്സ്റ്റ്ടുസ്പീച്ച് കാര്യം മാറുന്നത്